നമ്മുടെ ടൂറിസം മതവുമായിട്ട് ബന്ധപ്പെട്ടെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ കുട്ടനാട്ടില് കൂടുതലും പള്ളികൾ എന്നാ ഒരുപാട് ആൾക്കാർ വെളിയിൽ നിന്ന് വിദേശികളായാലും സ്വദേശികളായാലും പലരും വന്ന് കാണുകയും കേൾക്കുകയും പ്രാർത്ഥനയൊക്കെ നടത്തുകയൊക്കെ ചെയ്തിട്ട് പോകാറുണ്ട് അതായത് ഇപ്പം ചമ്പക്കുളം തന്നെ ചമ്പക്കുളം പള്ളി ഒരു ബസിലിക്ക ചമ്പക്കുളം ബസലിക്കയെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ തന്നെ അതിനകത്ത് ഒരുപാടാൾക്കാർ നാനാ ജാതിമതസ്ഥരായ ആൾക്കാർ വന്നു പോകുന്നൊരിടമാണ് അതുപോലെത്തന്നെ എടത്ത്വ പള്ളി എടത്ത്വ പള്ളിയെന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് തമിഴ്നാട്ടിൽനിന്നും ഉള്ള ആൾക്കാരും അതുപോലെത്തന്നെ വിദേശ ടൂറിസത്തിലുള്ള ആൾക്കാരുമൊക്കെ വന്ന് അവിടെ കണ്ടും കേട്ടും പ്രാർത്ഥനയും നടത്തിയൊക്കെ പോകുന്നവരാണ് തീർച്ചയായിട്ടും അതിനകത്ത് നാനാജാതിമതസ്ഥരായിട്ടുള്ള ആൾക്കാരെല്ലാം വരികയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്ന ഇടങ്ങളാണ് അതുപോലെത്തന്നെ അതിൻ്റെ അപ്പുറത്തോട്ട് മാറിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ചക്കുളത്ത് അമ്പലമുണ്ട് അമ്പലത്തിൽ ആണേലും പൊങ്കാലയും കാര്യങ്ങളും ഇതുമെല്ലാം നടക്കുന്നുണ്ട് അവിടെയും ഒക്കെയായാലും ഈ ഇതുപോലെ എന്നാ പല പ്രദേശത്തുനിന്നുള്ള ആൾക്കാർ അവിടെ സന്ദർശിക്കാനും കാര്യങ്ങളും വരികയും പോവുകയും ഒക്കെ ചെയ്യുന്നവരാണ് പിന്നെ നമ്മുടെ ഈ കുട്ടനാട്ടിലെ പ്രദേശത്തെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഒരുപാട് വിദേശ ടൂറിസവും അതുപോലെത്തന്നെ ഇന്ത്യയ്ക്കകത്തുള്ള ടൂറിസത്തിലും ആൾക്കാരുകൾ വന്ന് കണ്ടും കേട്ടും പോകുന്നുണ്ട് പ്രത്യേകിച്ച് ഇപ്പം തന്നെ ഇവിടെ കൈനകിരിയായാലും അവിടെ എന്നാ ബോട്ടിങ്ങും നദിയിലോട്ടുള്ള മറ്റുള്ള വ്യൂവൊക്കെയെന്ന് പറഞ്ഞാൽ നല്ല ഒരു എന്നാ ടൂറിസത്തിന് നല്ലൊരു വികസനം നടന്നുകൊണ്ടിരിക്കണ സ്ഥലമാണ് കാരണം ഇഷ്ടംപോലെ ആൾക്കാർ വന്നും ഈ ബോട്ടിങ്ങ് നടത്തുകയും മറ്റേ ഹൗസ്ബോട്ടിലായാലും അതുപോലെതന്നെ പിന്നെ സ്പീഡ്ബോട്ടിലായാലും അതുപോലെ സാധാ വള്ളങ്ങളഓക്കെ ആയാലും ഒക്കെ അവിടെ സഞ്ചരിക്കുകയും സ്ഥലങ്ങൾ കാണുകയും പിന്നെ സംഗതി ഒരുപാട് എന്നാ സ്വദേശത്തു നിന്നും വിദേശത്തു നിന്നും ഉള്ള ആൾക്കാർ വന്ന് കറങ്ങി പോകുന്ന ഒരിതാണ് പല പള്ളികളും അതുപോലെ അമ്പലങ്ങളായാലും മോസ്കുകളായാലും ഒക്കെ കുട്ടനാടിനെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ ഈ കൃഷിയും കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് പോകുന്നാണ് അപ്പോൾ ഒരുപാട് പേർ ഇതിനോടനുബന്ധിച്ച് വന്ന് കണ്ടും കേട്ടും ഇത് പൊയ്ക്കൊണ്ടിരിക്കുന്നവരാണ് വള്ളംങ്ങളായാലും മീൻപിടിത്തത്തിനകത്തായാലും പിന്നെ മതം ഇവിടെ അങ്ങനെയൊരു പ്രശ്നമുള്ളൊരു ഇതല്ല കാരണം എല്ലാ ആൾക്കാരും ഇവിടെ ഇവിടെ താമസിക്കുന്നവരാണെങ്കിൽ തന്നെ നാനാ ജാതി മതസ്ഥരായിട്ടുള്ള ആൾക്കാരെല്ലാം ഇടകലർന്ന് താമസിക്കുന്നൊരു സ്ഥലമാണ് കുട്ടനാടിനെ സംബന്ധിച്ച് അതുപോലെ നമ്മുടെ കാണാനും കേൾക്കാനും ഒക്കെയുള്ള സ്ഥലങ്ങളിലൊക്കെ അതുപോലെ അതായത് എന്നാ ആരാധനാലയങ്ങളിലൊക്കെ ഹിന്ദുക്കളായാലും ക്രിസ്ത്യൻസായാലും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ സ്ഥലങ്ങൾ സന്ദർശിക്കുകയും പോവുകയും വരികയും ഒക്കെ ചെയ്ത് നല്ല ഒരു ഒത്തൊരുമയോടുകൂടി പോകുന്ന ആളുകളാണ് നമ്മുടെ പ്രദേശത്തുള്ളത് ഞാൻ പൊതുവേ കണ്ടിരിക്കുന്നത് ഒരു അങ്ങനെ ഒരു വേർതിരിവ് ഇല്ലാത്ത ഒരു ജനസമൂഹമാണ് നമ്മുടേത് അതുപോലെതന്നെ ഏറ്റവും കൂടുതൽ ഹൗസ്ബോട്ടിൻ്റെ ഒരു ഇതുതന്നെയാണ് കുട്ടനാടൻ പ്രദേശത്തെ സംബന്ധിച്ചോളം ബോട്ടിങ്ങായാലും അതുപോലെ ഫിഷിങ്ങായാലും അതുപോലെ എല്ലാ രീതിയിലും ആളുകൾ സ്വയം ഇഷ്ടപ്പെട്ടും പ്രവർത്തിച്ചും കണ്ടും കേട്ടും വന്നും പോയും അതായത് കൂടുതലും വിദേശികൾ വിദേശ രാജ്യത്ത് നിന്നൊക്കെ വന്ന് യാത്ര ചെയ്ത് പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു ഇടം കൂടെയാണ് പിന്നെ നമ്മുടെ പ്രസിദ്ധമായിട്ടുള്ള ആലപ്പുഴ ഭാഗത്തോട്ട് ചെന്നു കഴിഞ്ഞാൽ ഇഷ്ടം പോലെ പള്ളികൾ അതായത് കൃപാസനം അതുപോലെ നമ്മുടെ ഐ എം എസ് അതുപോലെയുള്ള ആരാധനലയങ്ങൾ അതുപോലെ ഈ ഒരുപാട് ആൾക്കാർ വന്ന് പ്രാർത്ഥിച്ചും കണ്ടും കാണാനും അതുപോലെ കണ്ടും കേട്ടും സംസാരിച്ചും ഒക്കെ പോകുന്നൊരു പ്രദേശമായതുകൊണ്ട് തന്നെ വളരെ ക്ലിയറായിട്ട് എല്ലാ രീതിയ്ക്ക് അങ്ങ് പൊതുവേ ഒരു ശാന്തമായ സ്ഥലമാണ് അങ്ങനെ വലിയ പ്രശ്നങ്ങളുള്ള സ്ഥലവുമല്ല ശാന്തമായ സ്ഥലവും നല്ല കാലാവസ്ഥയും നല്ല പ്രകൃതിയും നല്ല രീതിയിലുള്ള ആൾക്കാരുമായിട്ട് ഇണങ്ങി ചേർന്ന് പോകുന്ന ഒരു ഇടമാണ് ഈ നമ്മുടെ ഇപ്പോൾ താമസിച്ചുകൊണ്ടിരിക്കുന്ന ആലപ്പുഴ കുട്ടനാട് പ്രദേശം എന്നു പറയുന്നത്